ഹലോ ആ ആ സ്ഥലത്തിൻ്റെ ബ്രോക്കറല്ലേ ബ്രോക്കറല്ലേ സ്ഥലത്തിൻ്റെ ബ്രോക്കറല്ലേ ആ അവിടെ നല്ല സ്ഥലങ്ങൾ വല്ലതും കിട്ടാനുണ്ടോ ഈ ഇവിടെയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇവടള്ളീ പുതിയ ക്ഷേത്രത്തിൻ്റെ അടുത്ത ഭാഗത്ത് എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങൾ കിട്ടാനുണ്ടോ എന്തോരം ദൂരം മാറും

ഒരു അരേക്കറായിക്കോട്ടെ അമ്പത് സെന്റ് എന്ത് വിലയ്ക്ക് കിട്ടും മെയിൻ റോഡ് സൈഡ് കിട്ടുവാണെ നല്ലതായിരുന്നു

ഒരുമാതിരി നല്ല വീടുള്ളത് വേണം ആ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം മെറ്റീരിയൽസ് എല്ലാം ഭയങ്കര വിലയായത് കാരണംകൊണ്ട് വീട് പണിത് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാകും അത് വാങ്ങുമ്പം വീടുളളത് തന്നെ വാങ്ങുവാണേൽ അത് ലാഭാ ഏ

വെള്ളവും വഴിയൊക്കെ ഉള്ളതാണോ അതിന് പറമ്പിലോട്ട് വെള്ളം ഒരിക്കും പറ്റാത്ത വെള്ളമാണോ അതോ ഇത് ഈ സ്ഥലത്തിനേയ് സ്ക്വയറാ ഈ സ്ഥലം കിടക്കുന്നത് കണ്ടത്തിന്റെ ചതുപ്പ് നിലം വല്ലതുമുണ്ടോ കണ്ടം പോലുള്ള സ്ഥലങ്ങളുണ്ടോ സ്ഥലത്തിന് ചേർന്ന് തോടുണ്ടോ തോട് കരെണ്ട് ഉണ്ടോ എലെക്ട്രിസിറ്റിയുണ്ടോ കറണ്ട് ഇല്ലല്ലേ വീട് നമുക്കൊരുമാതിരി നല്ല വീട് തന്നെ വേണം പിന്നെ കൃഷി എന്നാ ഉള്ളത് എന്നാ ആദായം ഉള്ളത് വരുമാനം ജാതി മാത്രമേയുളളൂ കായ്ച്ചതാണോ അതോ പൊയ്യാ അതെയോ എത്ര എണ്ണം ഉണ്ട് എത്ര ജാതി ഉണ്ട് ഉണ്ട് അമ്പത് സെൻറ്റിനകത്ത് ഇരുന്നൂറെണ്ണോ

ആ ആ ആ കുഴപ്പം ഇല്ല എന്നാ എന്നാ വിലയ്ക്ക് കിട്ടും ഈ പറഞ്ഞതെല്ലാം ഇത് റെഡി ക്യാഷ് കൊടുക്കണോ അതോ ഇച്ചിരി അവധിക്കൊക്കെ നിൽക്കുമോ ആ അപ്പോൾ ഞാൻ ഒരു ദിവസം ഇറങ്ങാം നോക്കട്ടെ വേറെ ഏതാ പ്ലോട്ടുള്ളത് ആ നോക്കട്ടെ ഞാൻ വരൂ നോക്കട്ടെ ഒന്ന് രണ്ട് സ്ഥലത്തിൻ്റെ കാര്യം വേറൊരു പാർട്ട്യോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടൊന്ന് നോക്കട്ടെ പിന്നെ ഇനിയും സ്ഥലം ഉണ്ടോ ഇതിനടുത്ത് വല്ലതും ചേർന്ന് വേറെ വല്ലതും ഉണ്ടോ ഇപ്പം ഈ പറഞ്ഞ സ്ഥലം അല്ലാതെ വേറെ ഇതിന്റെ അടുത്ത ഭാഗത്ത് വേറെ വല്ല സ്ഥലങ്ങളുണ്ടോ എന്ന് നമുക്ക് സൌകര്യം ഉള്ള

വാർക്കക്കെട്ടിടമാണോ ആ എത്ര മുറിയുള്ളതാ ആ ആ ആ നല്ല വാർക്ക കെട്ടിടമാണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ

ആ അടുത്ത ദിവസം അത് അടുത്ത ദിവസം തന്നെ രാവിലെ അങ്ങ് ഇറങ്ങിയേക്കാം അപ്പം ഒരു ന്യായമായ വിലക്ക് നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള കാണണം ആ വിളിച്ചേക്കാം ഓക്കേ ആ ഓക്കേ ആ ഓക്കേ മ് നാളെ കാണാം മ് നാളെ ഞാൻ വന്നേക്കാം കേട്ടോ